ഹലോ അതേ അതേ എവിടുന്നാണ് വിളിക്കുന്നത് അതേ എവിടുന്നാണ് വിളിക്കുന്നത് ആണോ ചേട്ടൻ്റെയാണോ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റാണോ ദിസ്സ് ആ ഫോട്ടോഗ്രാഫ്ഫ് തന്നല്ല എല്ലാം ചെയ്യുന്നുണ്ട് വീഡിയോഗ്രാഫി എല്ലാം ചെയ്യുന്നുണ്ട് അത് എന്നാ ഞങ്ങളുടെ ഡേറ്റ് നോക്കട്ടെ ഞങ്ങൾക്ക് വരാവുന്ന ദിവസം ആണോയെന്ന് അറിയണമല്ലൊ നിങ്ങൾക്ക് എന്നാണ് നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നെക്സ്റ്റ് സണ്ടേ ആണേൽ എവിടെയാണ് സ്ഥലം എവിടെയാണ് നാദാപുരത്ത് വെച്ചാണല്ലേ അപ്പം ഏത് സമയത്താണ് അവിടെ അപ്പം വണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്യുമോ ഞാൻ അറേഞ്ച് ചെയ്ത് തരണോ അപ്പം ഞങ്ങള് ഞങ്ങൾ നിങ്ങളെത്ര പേരാണ് വി ഈ ഫോട്ടോ ഇത് എല്ലാം കൂടെ മിനിമം ഞങ്ങളൊര് നാല് പേരെങ്കിലും വരേണ്ടി വരുവേ അപ്പം അതിന് ഞങ്ങൾ നാല് പേര് അപ്പം ഞങ്ങള് നാല് പേരാണ് വരുന്നതേ ഞങ്ങള് നാല് പേരും ഒരു ഡ്രൈവറും കൂടെ അഞ്ച് പേരാണ് വരുന്നതെ അപ്പം രണ്ട് പേര് സ്റ്റ് ഫോട്ടോയ്ക്ക് മാറും മൂന്ന് പേര് വീഡിയോയ്ക്ക് മാറും ആ അതിൻ്റെ ഫുൾ സെറ്റപ്പ് ആയിട്ട് വരാം അതിൻ്റെ റേയ്റ്റ് ഒക്കെ ഇത് ന്ന് വന്ന് ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ അതോ അമ്പതിനായിരം രൂപ അല്ല ഫുൾ ഫാഷനിൽ നിങ്ങൾക്ക് വീഡിയോ റെഡിയാക്കിത്തരും ഫോട്ടോയാണെങ്കില് ഒരു അമ്പതിനായിരം മുതല് മുകളിലോട്ട് ഇരുപത്തയ്യായിരം രൂപ മുതല് മുകളിലോട്ട് ഉണ്ട് അത് നിങ്ങള് എത്ര പ്രിൻറ്റെട്ക്കുന്നു എന്നോക്ക് ആശ്രയിച്ചിരിക്കും അതായാലും ഒരു ലക്ഷം രൂപായ് ഒര് ലക്ഷം രൂപാ ഒര് ലക്ഷം രൂപയ്ക്ക് മിനിമം നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തരാം ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് കാണുമ്പം സംസാരിക്കണം ഫോട്ടോസിന് ഒരൂ ഒരൂ ആൽബത്തിന് ഞങ്ങൾക്ക് നാല് ഫോട്ടോ വരെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് പേജിലൊക്കെ അകത്തോട്ടോക്കെ അതനുസരിച്ച് നാലായിരിക്കും പുറത്ത് വരുമ്പം വീഡിയോ എങ്ങനെ ഉള്ളതാണ് അത് അപ്പം നിങ്ങൾക്ക് വീഡിയോ വേണ്ട ആ അത് വീഡിയോ വേണ്ടങ്കിലേ വേറെ ഒര് ഇത് ഞങ്ങള് കമ്പയ്ൻ ചെയ്താൽ ഈ ഒര് ലക്ഷം രൂപ പറഞ്ഞതേ ഇനിയും വീഡിയോ വേണ്ടങ്കില് ഈ അൻപതിനായിരം രൂപയ്ക്ക് ഈ പറഞ്ഞ കണക്ക് ഇപ്പഴത്തെ ലേറ്റസ്റ്റ് ആൽബത്തിലൊക്കെ ഒട്ടിച്ച് അത് ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും ഒര് കാര്യം ചെയ്തൊ നാളെ ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വരുമോ വരുവല്ലോ

അപ്പം പൈസ ഒര് ബുദ്ധിമുട്ടായിരിക്കത്തില്ല അല്ലെ പൊളി സാധനം പക്കാ സാ കോവ് ആ അത് ഞങ്ങള് ഞങ്ങളെ ഈ ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നവരാണെ ഈ സാധാരണ അൾക്കാരല്ല ഞങ്ങള് ഞങ്ങള് ചെയ്യ്ന്നത് നല്ല ക്വാളിറ്റി വർക്ക് ആയിരിക്കും അത് നിങ്ങളുടെ അവിടെ ആ ചെയ്തു തന്നപ്പം അല്ല ഞങ്ങളേ മുൻപ് ഒക്കെ അവിടെ ഒരഞ്ച് വർഷം മുമ്പേ അഞ്ചു വർഷം മുമ്പേ നിങ്ങളുടെ പള്ളിയിൽ ഒരു ഓഡിനേഷൻ ഞങ്ങൾ ചെയ്തായിരുന്നു അത് നിങ്ങളുടെ ആരെങ്കിലും ആയിരുന്നോ ഓഡിനേഷൻ ഒര് തോമസ് പുന്നേടൻ എന്ന് പറഞ്ഞിട്ട്